നമ്മളെല്ലാവരും പട്ടണങ്ങളിലേക്ക് സന്ദർശിക്കുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യകരംന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിത്യജീവിതത്തിന് ആവശ്യകരമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയത് എന്ത് തന്നെ ആയിക്കോട്ടെ പാത്രങ്ങളാവാം ഭക്ഷണസാധനങ്ങളാവാം ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടീട്ടുള്ള പച്ചക്കറികളാവാം അരിയാവാം ധാന്യങ്ങളാവാം അതുപോലെ തന്നെ നിത്യോപകരണങ്ങളാവാം എന്തും ആവട്ടെ ഗ്യാസ് സ്റ്റവ് ഗ്യാസ് അങ്ങനെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് നമ്മൾ പട്ടണത്തിൽ കൂടുതലും നമ്മൾ പട്ടണങ്ങളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ പിന്നീട് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മൈൻഡ് റീലീഫാവാൻ വേണ്ടീട്ട് ഒന്ന് ജസ്റ്റൊന്ന് ചില്ലായി നടക്കാൻ വേണ്ടീട്ട് നമ്മൾ പട്ടണത്തിലേക്ക് പോവാറുണ്ട് അവിടെ നിന്നും പട്ടണത്തിൽ കൂടുതലും ന്യൂട്രൻറ്റായിട്ടുള്ള ഒരുപാട് ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനും അതുപോലെ തന്നെ മൈൻഡ് ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടീട്ടും നമ്മൾ പട്ടണത്തിലേക്ക് പോകാറുണ്ട് പിന്നെ ഗ്രാമങ്ങളിലേക്ക് പോകുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടീട്ടും അതുപോലെ തന്നെ ഒന്ന് കാം ആൻഡ് ക്വൈറ്റാവാൻ വേണ്ടീട്ടാണ് നമ്മൾ പട്ട ഗ്രാമങ്ങളിലേക്ക് പോകുന്നത്